എല്ലാ വാർത്തകളിലും ഒന്നും വിശ്വസിക്കുന്നില്ല മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാധ്യമ സ്വാ മാധ്യമം കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കാനൊന്നുമല്ല ഉള്ള കാര്യം ഉള്ള പോലെ പറയുക യാഥാർഥ സ്ഥിതിയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവുക എന്നുള്ള ഉള്ളതിനെ പെരുപ്പിച്ച് കാണിച്ച് അതിനെ വ്യത്യസ്ത തരത്തിലേക്ക് ആക്കുന്നതിനോടൊന്നും താല്പര്യം ഒന്നും ഇല്ല ഇന്നവതരിപ്പിക്കുന്ന എല്ലാ വാർത്തകളും വിശ്വസനീയം ഒന്നുമല്ല കുറച്ചൊക്കെ കാര്യങ്ങൾ കാണും പക്ഷെ അതിനെ എക്സാജറേറ്റ് ചെയ്ത് വിപുലീകരിച്ച് ഭയങ്കരമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒന്നും നല്ല കാര്യങ്ങളൊന്നും അല്ല അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യത്തക്ക രീതിയിലുള്ള പ്രചരണങ്ങളോടൊന്നും താല്പര്യമില്ല അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യത്തെ സത്യസന്ധമായി നേരോടും നിർഭയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ കർത്തവ്യം അതിനെ വളച്ചൊടിച്ച് അതിനെ വലുതാക്കി അങ്ങനെ രീതിയിൽ അവതരിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നിസ്സാര കാര്യമായിരിക്കാം അതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവർ ദുരുപയോഗം ചെയ്യരുത് നേരോടെ നിർഭയം നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം